അല്ല ഇത് ട്രാവൽ ഏജൻസിയല്ലായിരുന്നോ ആ എൻ്റെ പേര് ആകാശ് എന്നായിരുന്നു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു അത് സോളോ ട്രിപ്പ് ആയിരുന്നു ഗോവയിലേക്ക് ആയിരുന്നു പോവാൻ പ്ലാൻ ചെയ്തത് നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി ഫിഫ്ത്ത് ഫൈവ് ഡയ്സ് ട്രിപ്പായിരുന്നു എന്നാൽ നമുക്ക് ട്രെയിൻ മതി ട്രെയിൻ ട്രെയിനിന് കിട്ടുമോ ടിക്കറ്റ് കിട്ടുമോ

ആ ഗൈഡിൻ്റെ ആവശ്യം ഇല്ല

ആ അതെ അതെ വേണ്ട ആണല്ലേ അപ്പോൾ ഇത് ആണ് ഓക്കെ ആണ് പിന്നെ റേറ്റും കാര്യങ്ങളുമൊക്കെ ഇതിൽ കൂടെ തന്നെ പറയില്ലേ ഓരോ പാക്കേജ് അനുസരിച്ച്

ഓ വാട്സ്ആപ്പ് ചെയ്യാൻ വേണ്ടി ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു